ഞാൻ കുറച്ച് കിച്ചൺ യൂടേൺസിലെ കഴിഞ്ഞ ദിവസം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിരുന്നു അതിവിടെ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് മനസിലായത് നമ്മളുദ്ദേശിച്ച രീതിയിലുള്ള വലുപ്പമോ അതിനുള്ള ഒരു സൈസോ അതിനുണ്ടായിരുന്നില്ല എനിക്ക് അത് തീരെയിഷ്ടപ്പെട്ടില്ല